ഹലോ ഇതേ കൊടത്ത് നിന്നു കുമാരകത്തു നിന്നു വിളിക്കുന്നത് എൻ്റെ പേര് ജോർജ് ഞാൻ നിങ്ങളുടെ ഹോട്ട്ലിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ട് ആ ഡെലിവറി പയ്യൻ ബിജു എന്നോ മറ്റോ ആണ് അവൻ്റെ പേര് വരുന്നത് അര മണിക്കൂറിനകം വരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു മണിക്കൂറായി അവൻ വന്നിട്ട് ഇപ്പോൾ നമ്മുടെ നേരെ ചൂടാകുക ഞാൻ കൊടുത്ത അഡ്രസ് തെറ്റാന്നും പറഞ്ഞ് എൻ്റെ ഫോൺ നമ്പരും സംഭവവുമെല്ലാം നമ്മൾ അയച്ചു കൊടുത്തതാണ് ഒരു മര്യാദ ഇല്ലാത്ത പയ്യനാണ് അവൻ ഇവിടെ കൊണ്ടു വന്ന ഈ ഫുഡ് ആണെങ്കിലോ മുഴുവൻ തണുത്തിരിക്കുക അവൻ വേറെ എങ്ങാണ്ട് കുറേ നേരം പോയി നോക്കി നിന്നാച് ഇവിടെ വന്നത് അത് ഒരു ശരിയായ പ്രവണത ആണോ ഇത് നിങ്ങ അവന് തക്കതായ എന്തെങ്കിലും നടപടിയെടുക്കണം അവൻ്റേൽ അല്ലെന്നിരയിൽ നിങ്ങൾ ഈ പറയുന്നത് ശരിയല്ല നമ്മൾ ഇങ്ങനെ നിങ്ങൾ ഡെലിവറി നടത്തുന്നതെങ്കിൽ നിങ്ങളുടെ പരിപാടി നിന്നു പോകും അപ്പോൾ എനിക്കറിയാവുന്ന വ്യക്തികളോട് ഞാൻ പറഞ്ഞു കൊടുക്കില്ലേ ആ അവരുമായിട്ട് ഇടപെടാൻ കൊള്ളുകയില്ല അവരുടെ പെരുമാറ്റം ഇങ്ങനെയാണ് വേറെ നിങ്ങൾ അവനോട് വിളിച്ചൊന്ന് ചോദിക്കണ്ടെ നമ്മൾ ഈ കാര്യം അവനോട് പറഞ്ഞപ്പോൾ അവൻ നമ്മളെ നേരെ തട്ടികേറുകയാണ് ഞാനാണ്ട് വലിയ അപരാധം ചെയ്തപോലെ കാശും കൊടുത്ത് ഡേറ്റ് സമയം എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞിട്ട് അവൻ വന്നത് ഒരു മണിക്കൂർ കഴിഞ്ഞ് വീട്ടിൽ പിള്ളേരാണെങ്കിൽ എല്ലാം ഇതിപ്പോൾ കൊണ്ടുവരുമെന്നും പറഞ്ഞു നോക്കി ഇരിക്കുകയാണ് അതൊരു ശരിയായ പ്രവണതയല്ല നിങ്ങൾ അതിന് എന്തെങ്കിൽ ഒരു ആക്ഷൻ എടുക്കണം അല്ലെങ്കിൽ നമ്മളെ ഭാഗത്തു നിന്ന് ഇനി നിങ്ങളുമായിട്ട് യാതൊരു സഹകരണവും ഉണ്ടാവുകയില്ല നമ്മൾക്ക് അറിയാവുന്നവരെ കൊണ്ടുപോലും മേടിപ്പിക്കുകയില്ല ഇവിടെ നിന്ന്